ഞാനൊരു ഹിന്ദുവായത് കൊണ്ടുതന്നെ വിവാഹ ചടങ്ങുകൾ എന്താന്ന് വെച്ചാൽ ആദ്യം പുരുഷൻൻ്റെയും സ്ത്രീയുടെയും ജാതകം നോക്കി പൊരുത്തം നോക്കി പൊരുത്തം നോക്കി മാത്രമാണ് അവരുടെ ജാ കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അവരെ താലി കെട്ടേണ്ട മുഹൂർത്തം താലികെട്ട് അഗ്നിക്കു മുന്നിൽ താലികെട്ടിയിട്ടാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയിട്ടാണ് ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി വിവാഹം കഴിക്കുന്നത് അതിനുള്ള സമയം അതായത് മുഹൂർത്തം നോക്കി നല്ലൊരു സമയം നോക്കി ആ മുഹൂർത്തം നോക്കിയിട്ട് മാത്രമാണ് ആ നല്ലൊരു മുഹൂർത്ത സമയത്താണ് അവർ കല്യാണം കഴിക്കുന്നത് ആ കല്യാണത്തിന് അവർ പറയിലെ നെല് നെല്ല് ക പൂക്കുല പിന്നെ അഗ്നി നിലവിളക്ക് കത്തിച്ചു വച്ച് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിന്ദു ഹിന്ദുക്കളിലെ എന്താ പറയാ ഹിന്ദുക്കള് കല്യാണം നടക്കുന്നത് ആ കല്യാണത്തില് ഒരു താലി മേടിച്ച് ആ താലി ക പുരുഷൻ സ പുരുഷൻ സ്ത്രീയുടെ മ കഴുത്തിൽ അണിയിച്ചു കൊണ്ട് പിന്നെ പൂമാല ഇട്ടുകൊണ്ട് നെറ്റിയിൽ സ സിന്ദൂരം തൊട്ടു കൊണ്ടാണ് കല്യാണം കഴിഞ്ഞത് അധികം പേരും അധികം എല്ലാ ഹിന്ദുക്കളുടെയും അമ്പലങ്ങളിൽ വച്ചിട്ടാണ് കല്യാണം കഴിയുന്നത് ആ അമ്പലങ്ങളില് കഴിഞ്ഞിട്ട് നമ്മുടെ വിവാഹ സൽക്കാരങ്ങൾ നടക്കുന്നുണ്ട്